ആദ്യത്തെ പ്രൊഡക്റ്റിനെപ്പറ്റി പറയാണെങ്കിൽ ആദ്യത്തെ എൻ്റെ പ്രോഡക്റ്റ് മൊബൈൽ ഫോൺ ആണ് ഞാൻ ഈ അടുത്ത് എൻ്റെ ഫോണൊന്ന് മാറ്റിയായിരുന്നു ആപ്പിൾ ഐഫോൺ ഇലവൺ ആണ് ഞാൻ പർച്ചേസ് ചെയ്തിരുന്നേ ഞാൻ എടുത്ത പ്രൈസ് എന്നു പറയുന്നത് മുപ്പത്താറായിരം രൂപയ്ക്കാണ് എനിക്കെൻ്റെ ആപ്പിൾ ഐഫോൺ ഇലവൺ സ്വന്തമാക്കാൻ പറ്റിയത് ആ ഒരു എമൗണ്ടിൽ ഞാൻ തൃപ്തികരമാണ് കാരണം ആ ഒരു അമൗണ്ടിൽ കിട്ടാവുന്നതിൽ വെച്ച ഏറ്റവും നല്ല ഫോൺ ആണ് എനിക്ക് വാങ്ങാൻ സാധിച്ചത് ആപ്പിൾ ഐഫോൺ ഇലവനെപ്പറ്റി പറയുകയാണെങ്കിൽ ആദ്യത്തെ കാര്യം അതിൻ്റെ ചിപ് സെറ്റാണ് ഏറ്റവും നല്ല പെർഫോമൻസ് ആണ് അത് തരുന്നത് രണ്ടാമത്തെ കാര്യം അതിൻ്റെ ക്യാമറ നമുക്ക് മനോഹരമായ ഫോട്ടോകളും അതേപോലെ തന്നെ ഫോർകെ സിക്സ്റ്റി എഫ് പി എസ് വരെയുള്ള വീഡിയോസും നമുക്കതിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റും എസ്പെഷ്യലി പറയുകയാണെങ്കിൽ പ്രത്യേകമായി നമുക്ക് അത് ഒരു വ്ളോഗ്ഗിങ്ങിന് വേണ്ടിയിട്ട് ബെസ്റ്റ് പെർഫോർമൻസിന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും ഫ്രണ്ട് ക്യാമറ ആയാലും ബാക്കിലെ ക്യാമറ ആണെങ്കിലും നല്ല പെർഫോർമൻസ് ആണ് തരുന്നത് മൂന്നാമത്തെ കാര്യം പറയുകയാണെങ്കിൽ അതിൻ്റെ ഡിസൈൻ നല്ല മനോഹരമായ ക്യൂ ഡിസൈനാണ് ആപ്പിൾ ഐഫോൺ ഇലവനിൽ ഇരിക്കുന്നത് അതേപോലെതന്നെ അടുത്തത് പറയുകയാണെങ്കിൽ ഈ മുപ്പത്താറായിരം രൂപയെന്ന് പറയുമ്പോൾ ചെറിയ മണി അല്ല പക്ഷെ എന്നിരുന്നാലും ആ ഒരു പ്രൈസ് റേഞ്ചിൽ നല്ലൊരു ഫോൺ നല്ലൊരു ഫോട്ടോ എടുക്കാൻ പറ്റിയ ഫോൺ അത്യുഗ്രൻ പെർഫോമൻസ് കൂടുതലുള്ള ഫോൺ അത്യുഗ്രമായി നമുക്ക് ഗെയിം കളിക്കാൻ പറ്റുന്ന ഫോൺ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഈ ഒരു ബിൽഡ് ക്വാളിറ്റിയും നമുക്ക് വേറൊന്നും കിട്ടത്തില്ല അതേപോലെ തന്നെ നമുക്ക് മൂന്ന് വർഷം വരെയുള്ള അപ്ഡേറ്റ്സ് ആപ്പിൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ്